കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അത് സമയവും നഷ്ടം നമുക്ക് അതിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നുമില്ല അത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ് മൽസ്യം പിടിക്കുക എന്ന് വച്ചാൽ നല്ല രസമുള്ള ഒരു കാര്യമാണ് അത് നല്ല നല്ല സന്തോഷം മനസ്സിന് നല്ല ഒരു സന്തോഷം പകരുന്ന കാര്യമാണ് അപകടങ്ങളൊന്നും ഇല്ലാതെ മൽസ്യം പിടിക്കാൻ കഴിഞ്ഞാൽ അത് നല്ല ഒരു നല്ല ഒരു രസകരമായ ഒരു തൊഴിൽ തന്നെയാണ്